ദിസ് കോൾ ഇസ് നൗ ഹലോ ബീങ്ങ് റെക്കോർഡഡ് ആ പറഞ്ഞോ ഹലോ ആരാണ് ഹലോ ആ ആ ആ ഓ ഹൗസ് ബ്രോക്കർ ആയിരുന്നല്ലേ ആ ആ ഓക്കെ ഓക്കെ ആ എനിക്ക് ഒരു രണ്ട് രണ്ട് നില ഉള്ള വീട് വേണം ഏകദേശം ഒരു പത്ത് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീട് വേണം ഞങ്ങളൊരു കുടുംബമായിട്ടാണ് ഫാമിലി ആയിട്ടാണേ ആ ഞാൻ മൊത്തത്തിൽ മേടിക്കാനായിട്ടാണ് പ്ലോട്ട് ഉൾപ്പെടെ അങ്ങ് മേടിക്കാനായിട്ടാണ് ആ എ അപ്പം അവിടെ സെൻറിന് വില സെൻറിന് ആ രണ്ടായിരം മൂവായിരം വേണം സെൻറിന് എന്ത് വില വരും അവിടെ എനിക്ക് കുറച്ചുംകൂടെ സിറ്റി ആണ് നല്ലത് അപ്പം അടുത്ത് പള്ളി അം അ കുറച്ചും കൂടെ ഒന്ന് താഴ്ക്കാൻ പറ്റുമോ കുറച്ചുംകൂടെ ഒക്കെ ഒന്ന് ആണോ എനിക്ക് ഞാൻ ഒരു പ്രൊപ്പോസൽ വെച്ചിരിക്കുന്നത് ഒരു നാലര അഞ്ച് ആ ഒരു റെ അത്രയും ഉള്ള ഇതിലാണ് ഞാൻ പ്രൊപ്പോസൽ വയ്ക്കുന്നതേ വീടിന് എന്തുവാ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെയോ എല്ലാം കൂടെ എന്ത് വരും എത്ര സെൻറ് സ്ഥലം ഉണ്ടത് കയ്യിൽ ഉള്ളത്

ആ ആ ആ ആ അപ്പോൾ രണ്ടായിരം മതി പത്ത് സെൻറ് സ്ഥലമോ അതോ അഞ്ചോ അപ്പം എ ഏകദേശം എല്ലാം കൂടെ ഒരു അൻ അൻപത് ലക്ഷം രൂപ അതിൽ ഉറപ്പിക്കാം അല്ലേ ആ അപ്പം നമുക്ക് കുറച്ചും കൂടെ ഒന്നും കൂടെ ഒന്ന് വീണ്ടും നെഗോഷ്യബിൾ ആണോ കുറച്ചും കൂടെ ഒക്കെ സംസാരിച്ചാൽ താഴുമോ ആണല്ലേ അപ്പം എത്ര ബെഡ്റൂം ഉണ്ട് വീടിൻ്റെ സ്ട്രക്ച്ചർ ഒന്ന് പറയാമോ ബെഡ്റൂം എത്ര ഉണ്ട്

ഓക്കെ ഓക്കെ ആ ആ ആ ഹാ ഹാ ഹാ പണ്ടത്തെ സ്റ്റൈൽ വീടാണ്

ആ ഹ ഹാ ആ ആ ആ വീടിന് അങ്ങനെ കാലപ്പഴക്കങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടോ അങ്ങനെ എന്തെങ്കിലും വീടി ബിൽഡിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂസ് ഒന്നും ആണോ അപ്പം ഞാനേ ഒരു കാര്യം ചെയ്യ് ഞാൻ എൻ്റെ കുടുംബവുമായിട്ടേ കുടുംബവുമായിട്ടൊന്ന് ആലോചിച്ചിട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ശരി ശരി എന്നാലേ